അപ്പൊൾ നമ്മുടെ പോലത്തെ അവസ്ഥയില് കൂടുതലും കുട്ടികള് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പം മുതലേ ഓട്ടം പ്രാക്ടീസും കാര്യങ്ങളൊന്നും ഉണ്ടാവൂല എന്നാലും സ്കൂളിലൊള്ള എന്താ പറയുക ഇങ്ങനൊള്ള പ്രോഗ്രാംസ് അതായത് സ്പോർട്സ് ആർട്സ് ഇങ്ങനെയുള്ള പ്രോഗ്രാംസിലാണ് കൂടുതലായിട്ടും അവര് പങ്കെടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊൾ അവർക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എന്താ പറയുക ആരോഗ്യം മെച്ചപ്പെടുത്താനൊക്കെ സാധിക്കും കാരണം അവര് സ്പോർട്സ് കാര്യങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ അവരുടെ സ്ട്രെങ്ങ്ത്തും കാര്യങ്ങളൊക്കെ നല്ല രീതിക്കന്നെ വർധിക്കുകയും അപ്പൊൾ അത്കൊണ്ട് അവർക്ക് നല്ല രീതിക്കുള്ള ബോഡി ലാംഗ്വേജും കാര്യങ്ങളായിക്കോട്ടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി ഉണ്ടാക്കി എടുക്കാനൊക്കെ സ്പോർട്സിലൂടെ അതിപ്പോൾ ഓട്ടം മാത്രല്ല ഓടുന്നതായിക്കോട്ടെ ലോങ്ങ് ജമ്പ് ഹൈ ജമ്പ് ഇപ്പൊൾ എന്താ പറയുക ഡിസ്കസ് ത്രോ അത് പിന്നെ ഹാമറ് അങ്ങനുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയുക ജാ ഹർഡിൽസ് അങ്ങനുള്ള എല്ലാ കാര്യങ്ങൾക്കും പങ്കെടുക്കുന്നതിലൂടെ നല്ലൊരു എന്താ പറയുക ആരോഗ്യം ഉള്ളൊരു ശരീരം തന്നെ അവർക്ക് വാർത്തെടുക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പൊൾ അത് നല്ലൊരു കാര്യായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്